ഹലോ പഞ്ചമനല്ലേ അ പഞ്ചമാ നാളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലൊരു കുടുംബയോഗം ഉണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് പേർക്ക് വേണ്ടി പൊറോട്ടായും ചില്ലി ചിക്കനും വേണം കേട്ടോ നാളെ ഒരു ഒരു മൂന്നു മൂന്നരയാവുമ്പോഴത്തേക്ക് ഞങ്ങൾക്കത് കിട്ടണം ആ ഹലോ അ പഞ്ചമാ ഇന്ന് ഞാൻ നാളത്തേക്ക് ഒരു ഓർഡർ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ കുടുംബയോഗത്തിന് അതേ ഞങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള വേറൊരാളുടെ ആശുപത്രി കേസ് വന്നത് കാരണം നമ്മൾ ആ യോഗം മാറ്റിവെച്ചു അതുകാരണം ഞങ്ങൾക്ക് അ ഓഡറ് വേണ്ട കേട്ടോ കാരണം ആൾക്കാരെല്ലാവരും അങ്ങോട്ടു ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കാരണം ആശുപത്രി കേസ് ആയതുകൊണ്ട് ഇച്ചരെ സീരിയസാണെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങോട്ടു പോയി ആശുപത്രി നിൽക്കാനും എടുക്കാനും ഒക്കെ ഉള്ള താമസസൗകര്യം കൊണ്ട് അസൗകര്യം എല്ലാവർക്കും ഉണ്ടായത് കൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞത് നമുക്ക് നമ്മുടെ കുടുംബയോഗം ഒന്നു മാറ്റിവെക്കാം എന്തായാലും ഞങ്ങൾ ഈ ഓഡറ് ഞാൻ വേറെ ഏത് ദിവസവാണ് അവർ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അന്ന് തന്നാൽ പോരെ വേറെ കുഴപ്പമൊന്നുല്ലല്ലോ പഞ്ചമന് എന്നാന്നോ പഞ്ചമ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഇത്രയും പേർ മാറ്റത്തില്ല കാരണം ഒരു അഞ്ചാറു പേരോളം അവിടോട്ട് പോവാന്ന് പറഞ്ഞു അത് കാരണം നമ്മൾ എല്ലാവരും എല്ലാവരും കൂടി കൂട്ടി ആലോചിച്ചാണ് നമ്മൾ തീരുമാനിച്ചത് പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം വന്നതുകൊണ്ട് എനിക്കിപ്പോൾ അത് നടത്തിക്കൊണ്ടു പോവാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണെ അത് വേറെ ഏത് ദിവസാന്നാ ആലോചിച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ അത് പഞ്ചമനെ വിളിച്ചു പറയാം അപ്പോൾ എനിക്ക് അന്നത്തേക്ക് ഈ പൊറോട്ടയുടെയും ചില്ലി ചിക്കൻ്റെയും ഓർഡർ അന്ന് എനിക്ക് ചെയ്തു തരാമോ ബുദ്ധിമുട്ടുണ്ടോ പഞ്ചമന് എന്തേലും ബുദ്ധിമുട്ടുണ്ടേൽ പറയണം കേട്ടോ കാരണം ഞാൻ അ ഡേറ്റ് വന്ന ഉടനെ പഞ്ചമനെ ഞാൻ വിളിക്കാവേ ഓ അ ഓക്കേ ഓക്കേ അ താങ്ക് യൂ